ബാല്യകാല സ്മരണകൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഓണത്തിന് നമ്മുടെ വഴിയിൽ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് പന്ത് കളിക്കുന്നത് അതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഫ്രീഡം കിട്ടുന്നത് അന്നാണ് ഓണത്തിനാണ് കളിക്കാം ബാക്കി പിള്ളേരുടെ കൂടെ ഒക്കെ കളിച്ച് പന്ത് കളിക്കാനും തൊട്ടുകളി അങ്ങനെ ഒരുപാടു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് പിന്നെ നീന്താൻ പോകാമായിരുന്നു അപ്പം നമ്മൾ കൂട്ടമായിട്ട് ഒരു അഞ്ചാറ് പേരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കുറെ നാൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ സൈക്കിളിലായി അപ്പം അങ്ങനെ ആ നീന്താൻ പോകുന്നതും ആ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്കിനി ജീവിതത്തിലൊരിക്കലും തിരിച്ചു കിട്ടാത്ത കുറെ സംഭവങ്ങളാണതൊക്കെ അതുപോലെ തന്നെ ഷട്ടില് കളിക്കാൻ പോകുന്നത് പിന്നെ ഓണത്തിന് ക്ലബിൻ്റെ വക മത്സരങ്ങളും അന്ന് അത്തപ്പൂവിടൽ മത്സരം ഒക്കെ നടത്തുന്നത് ഇതെല്ലാം അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയതും അതൊക്കെ എപ്പോഴും മറക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലെങ്കിൽ നമുക്കിനി ജീവിതത്തിലതൊന്നും തിരിച്ച് കിട്ടാത്തൊരു കാര്യമണ് ഒരു പക്ഷേ എനിക്ക് അന്ന് എൻ്റെ മക്കൾക്ക് പോലും ആ അതിനുള്ളൊരു ഭാഗ്യമില്ല അതുപോലെ അവരെയൊന്നും നമുക്കിപ്പം സേഫായിട്ടങ്ങോട്ട് വെളിയിലേക്ക് പറഞ്ഞു വിടാനും ഒക്കത്തില്ല പഴയതുപോലെ പഴയത് നമുക്ക് ഫ്രീയായിട്ട് നമുക്ക് പൊറത്തെവിടെങ്കിലും പോവാം ആരുടെ ഒപ്പം വേണങ്കിലും നമുക്ക് പോയി നമുക്ക് കളിക്കാം ഷട്ടില് കളിക്കാം പന്ത് കളിക്കാം പേടിക്കേണ്ട ഒരവസ്ഥ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം കുട്ടികളെ അങ്ങനെ നമുക്കങ്ങനെ പുറത്തു വിടാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എന്നെയൊക്കെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെയൊക്കെ കുട്ടിക്കാലോം എന്ന് പറയണത് ഭയങ്കര വളരെ എന്താണ് വളരെ സമ്പന്നമായിട്ടുള്ളൊരു ബാല്യ കാലമായിരുന്നു എന്ന് പറയാം നമുക്കത് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടാനും പോകുന്നില്ല